ആ ചേട്ടാ അതിപ്പോൾ എങ്ങനെയാണെന്ന് അപ്പോൾ യു പി ഐ വഴി ഈ പൈസ അടയ്ക്കാൻ പറ്റുവോ ഇല്ല എൻ്റെ കയ്യുമ്മൽ ക്യാ പൈസ ഇല്ല ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പറോ ഫോൺ പേ നമ്പറോ ഏതെങ്കിലും പറഞ്ഞാൽ മതി അപ്പോൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഏതിനെങ്കിലും ഞാൻ പൈസ അയച്ച് തരാം ഇല്ല ചേട്ടാ കയ്യുമ്മൽ പൈസ ഇപ്പം ഒന്നും ഇല്ല പൈസ എല്ലാം ബാങ്ക് അക്കൗണ്ടിലാണുള്ളത് ഇപ്പം പിന്നെ എല്ലാവരും ഗൂഗിൾ പേ ഫോൺ പേ ആണല്ലോ യൂസ് ചെയ്യുന്നേ

സാധാരണ ഇപ്പം യാത്ര ചെയ്യുമ്പോൾ എല്ലാം വണ്ടികളിൽ ഇങ്ങനെ ഈ ഗൂഗിൾ പേ ഫോൺ പേ ഉണ്ടാവലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേട്ടനോട് ഒന്നും ചോദിക്കാതിരുന്നത് ആദ്യം കയറുന്ന സമയത്ത് ചേട്ടനോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അതോണ്ടാ പിന്നെ ചോദിക്കാതിരുന്നത് ഞാൻ വിചാരിച്ചു ചേട്ടൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഉണ്ടാകുവായിരിക്കുമെന്ന് ചേട്ടൻ എങ്ങനെ ഗൂഗിൾ പേ ഇല്ലേ അങ്ങനെ ഞാൻ ഗൂഗിൾ പേയില് ക്യാഷ് പൈസ അയച്ചു തരാം ആ ചേട്ടൻ ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും കുഴപ്പമില്ല രണ്ടും ഉണ്ട് എൻ്റെ കയ്യുമ്മൽ

ആ അതെ അതെ ചേട്ടൻ നമ്പറ് പറഞ്ഞാൽ ഞാൻ ഇപ്പം അയച്ചു തരാമായിരുന്നു ചേട്ടനൊന്ന് ഗൂഗിൾ പേ നമ്പർ പറയമോ ആ ഏത് യൂ പി ഐ ആപ്പായാലും കുഴപ്പമില്ല ഇല്ലില്ല ഗൂഗിൾ പേ നമ്പറ് ഇല്ലെങ്കിലും സ്ക്കാനറുണ്ടെങ്കിൽ സ്കാനറു കണിച്ച് തന്നാൽ മതി സ്കാനറ് ഞാൻ സ്കാൻ ചെയ്തിട്ട് അയച്ചോളാം ആ ചേട്ടാ ഒന്ന് വേഗം കാണിക്ക് ചേട്ടാ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അല്ലല്ല കുറച്ച് തിരക്കുണ്ട് പൈസ ഒന്ന് വേഗം അയച്ചിട്ട് എൻ്റെ ചിലപ്പം ഗൂഗിൾ പേ സർവർ ഡൗൺ ആവോന്ന് പറയാൻ പറ്റൂലാ ഗൂഗിൾ പേ പ്രവർത്തിച്ചിട്ടില്ലങ്കിൽ ചിലപ്പം ആ സ സാധാരണ ചില സമയങ്ങളിലങ്ങനെ ഗൂഗിൾ പേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ആ ചേട്ടനൊന്ന് സ്കാനറ് കാണിച്ച് തരോ വേഗം അങ്ങനെ ആണെങ്കിൽ എനിക്ക് പെട്ടന്നൊന്ന് പൈസ ചേട്ടന് അയച്ചു തരാമായിരുന്നു ഇല്ലില്ല പൈസ പൈസ വരും എല്ലാം ചെയ്യും എന്തായാലും പൈസ വരും പൈസ അങ്ങനെ കിട്ടാണ്ടൊക്കുവൊന്നുല്ലാ അതു ഞാൻ പറഞ്ഞത് ചില സമയത്ത് അങ്ങനെ ഗൂഗിൾ പേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നാന്ന് അങ്ങനെ ഉറപ്പൊന്നുമില്ലാ ആ ഇതിലാണോ അയക്കേണ്ടത് ആ ചേട്ടൻ കാണിക്ക്